ഇപ്പം മലയാള ഭാഷ ഇപ്പോള് എടുക്കുകയാണെങ്കില് പണ്ട് പ്രാചീന ഭാഷകള് ഇപ്പോള് പണ്ടത്തെ ഒരുപാട് പഴഞ്ചൊല്ലുണ്ടല്ലോ താന് കുഴിച്ച കുഴിയില് താന് തന്നെ വീഴും മത്തന് കുത്തിയാല് കുമ്പളം മുളയ്ക്കില്ല പിന്നെന്താണ് അണ്ണാറക്കണ്ണനും തന്നാലായത് അങ്ങനെയൊക്കെ ഉള്ള പഴഞ്ചൊല്ലുകള് ഭയങ്കര രസകരമാണ് നമുക്കിപ്പോഴുള്ള കാലഘട്ടത്തില് അതൊക്കെ കേള്ക്കുമ്പോള് അതിൻ്റെ അര്ത്ഥമെന്താണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് നോക്കി പോകും അയ്യോ ഇതിൻ്റെ അര്ത്ഥം എന്താണ് എന്നൊക്കെ നമ്മള് ഓര്ത്തുപോകും പക്ഷെ ഇപ്പോഴത്തെ വാക്കുകളെന്ന് പറയുന്നത് കുറച്ച് നമ്മള് യങ്ങ് ജനറേഷനാണെങ്കില് ഇപ്പോഴത്തെ കാലത്ത് സിനിമ സിനിമാ പ്രേമികളാണല്ലോ കൂടുതലാള്ക്കാര് അപ്പോള് സിനിമ അപ്പോള് സിനിമയിലെ ഡയലോഗ്സ് ഇപ്പോള് എടാ മോനെ എന്താ അംബാനെ എന്നൊക്കെ പറഞ്ഞിട്ട് എടാ സീനാണ് സീന് കോണ്ഡ്രയാണ് മോനെ വേറെ ലെവലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമയുടെ ഡയലോഗ്സുണ്ട് അപ്പോള് അതൊക്കെ ഭയങ്കര അത് നമ്മള് നമ്മുടെ ലൈഫ്സ്റ്റൈലുമായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് പഴഞ്ചൊല്ല് പണ്ടുള്ള ആള്ക്കാരാണ് കൂടുതല് ഇപ്പോഴങ്ങനെ ആരുമങ്ങനെ പഴഞ്ചൊല്ല് യൂസ് ചെയ്യുന്നത് കുറവാണ് പക്ഷെ കൂടുതലും ഇപ്പോള് യങ്ങ് ജനറേഷന് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സീന് കോണ്ഡ്രാ അയ്യോ മോനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡയലോഗ്സുണ്ട് അപ്പോള് അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള വാക്കുകള് കുറച്ച് ഇന്ട്രസ്റ്റിങ്ങായിട്ട് ഫീല് ചെയ്യും അപ്പോള് ആള്ക്കാര് കുറച്ചുകൂടെ അങ്ങനത്തെ വാക്കുകള് യൂസ് ചെയ്യും അപ്പോള് ബ്രോ എന്ന് വിളിക്കുന്നത് അനിയാന്നാണ് അനിയാ അല്ലെങ്കില് സഹോദരാ എന്നൊക്കെയല്ലേ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്യാറ് ഇപ്പം ബ്രോ ബ്രോ ഇങ്ങോട്ട് വരൂ ബ്രോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് അപ്പോള് അത് കുറച്ച് ഡിഫ്രന്ടാണ് ഇപ്പോഴത്തെ കാലത്ത് അതിനെ ഉപയോഗിക്കുന്നത് കൂടുതലാള്ക്കാരങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ബ്രോ മച്ചാനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വിളി എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കില് ഇപ്പോള് പറയും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറയും ഇപ്പോള് പറ ഇപ്പോള് പറയുന്നത് എന്ന് വെച്ചാല് എടാ ഇങ്ങനെയൊരു സീനുണ്ടെന്നാണ് അപ്പോള് ഭാഷകളില് ഭയങ്കര രസകരമായിട്ട് ആള്ക്കാരത് എടുത്തതുകൊണ്ടാണ് അവരങ്ങനെ ഇപ്പോള് യൂസ് ചെയ്യുന്നത് കൂടുതല് അവരുടെ ലൈഫ്സ്റ്റൈലുമായിട്ട് അത് കണക്ട് ചെയ്ത് അങ്ങനെ ഇപ്പോള് യൂസ് ചെയ്യുന്നത്